എപ്പോഴാണ് നെയ്തു തുന്നൽ തുടങ്ങിയത് എന്നു ചോദിച്ചാൽ തുന്നൽ നമ്മൾ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പം നമ്മൾക്ക് നമ്മടേതായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തു അങ്ങനെ ഒരു ഇതിൽ തുന്നൽ തുടങ്ങി എല്ലാവർക്കും തയ്ച്ചു കൊടുക്കുവാനും അതുകൊണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വരെ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വരെ നമുക്ക് വേണമെങ്കിൽ ഇതു ഉപയോഗിക്കാൻ സാധിക്കും നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വീട്ടിൽ മറ്റ് എല്ലവരുടെയും നമ്മുടെ വീട്ടിൽ ഉള്ളവരുടെ എങ്കിലും നമുക്ക് സ്വന്തമായിട്ട് തുന്നി തയ്ച്ചിടാൻ പറ്റും അതിനും പുറത്ത് കൊണ്ടു പോയി കൊടുത്ത് ചെയ്യിക്കേണ്ട ആവശ്യം പൈസ അധികം ഇല്ലാത്ത സ്വന്തായിട്ട് ഒരു തുന്നൽ സംരംഭം ആരംഭിക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് വീട്ടിൽ ഇപ്പം ഒരുപാട് പേരുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് വിദ്യാഭ്യാസം ചിലവർക്ക് വിദ്യാഭ്യാസം ഒരുപാടുണ്ട് ചിലവർക്ക് വിദ്യാഭ്യാസം കുറവാണ് അപ്പം അങ്ങനെ ഉള്ളവർക്ക് വിദ്യാഭ്യാസത്തിന് ഇല്ലെങ്കിൽ പോലും ഈ തുന്നലിലൂടെ ജീവിക്കാനുള്ളൊരു വരുമാനം കിട്ടുന്നുണ്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ സ്വന്തം വീട്ടുകാർക്ക് തന്നെ അങ്ങനെ ചെയ്തു കൊടുക്കാം വീട്ടുകാർക്ക് തന്നെ തയ്ച്ചും തയ്ച്ചു എല്ലാം കൊടുക്കാം അതുപോലെ തന്നെ വീട്ടിന് പുറത്തു നട്ടാൽ ആരെങ്കിലും വന്നു ചോദിച്ചാൽ അവർക്കും ചെയ്യാൻ ഉള്ളത് നമുക്ക് കൊടുക്കാൻ സാധിക്കും അവർക്കും കൂടെ ചെയ്തു കൊടുക്കുമ്പോൾ അത് നമുക്ക് ഒരു വരുമാനം ആയിട്ടാണ് കിട്ടുന്നത് നമുക്ക് അതൊരു വരുമാനം ആയിട്ടാണ് നമുക്ക് അത് കിട്ടുന്നത് തുന്നലിന് പല രീതികൾ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ തുണി നമ്മൾ ഡ്രസ്സുകളൊക്കെ തുന്നി തയ്ക്കും അതുപോലെ നല്ല ആർട്ട് വർക്ക് ആർട്ട് വർക്കുകൾ ചെയ്യുവാണെങ്കിലും തുന്നലിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഏറ്റവും മനോഹരമാക്കാൻ പറ്റും പൂക്കൾ ഉണ്ടാക്കാനും മറ്റ് കായ്കൾ ഈ ഈ ഡ്രസ്സിലുള്ള സ്റ്റിച്ചിങ് വർക്കുകളൊക്കെ നമുക്ക് തുന്നലിലൂടെ അത് മിഷീൻ വഴി ഉണ്ട് കൈ കൊണ്ടു നമ്മൾ തുന്നി തയ്ക്കുന്നത് ഉണ്ട് അങ്ങനെ പലവിധ സംരഭങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ആഗ്രഹിച്ചും മോഹിച്ചും തുന്നൽ നമ്മൾ സ്റ്റാർട്ട് തുടങ്ങിയത് അത് നല്ല വിജയകരമായി തീരുകയും ചെയ്യുന്നുണ്ട് അതിന് താൽപര്യ ഉണ്ടാകാൻ കാരണം എന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പം നമുക്ക് നമ്മുടേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം കാണും അപ്പോൾ അതെല്ലാം മറന്നു നമ്മുടെ മനസ് ഒന്നു സ്വസ്ഥമാകാനും എല്ലാത്തിനും നമുക്ക് ഇത് തുന്നലിലൂടെ സാധിക്കും കാരണം നമ്മൾ ഇപ്പോൾ ചുമ്മാ ഇരിക്കില്ല ഒരു വർക്കിൽ ഏർപ്പെടുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ അതിന് നമുക്ക് ഒരു നല്ല എന്നാൽ പറയാൻ നമുക്ക് മനസൊക്കെ ഫ്രീ ആവുകയാണ് ചെയ്യുന്നത് അതിലേക്ക് മുഴുകി അതിലേക്ക് കോൺസ്ട്രേഷൻ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ആണ് ചെയ്യുന്നത് അത് തുടരാനുള്ള പ്രയോജനം എന്തെന്നു ചോദിച്ചാൽ അത് നമുക്ക് സ്വന്തം നമ്മൾ സ്വന്തം ആവശ്യങ്ങൾക്ക് എങ്കിലും മറ്റുള്ള സഹകരിക്കാൻ നമുക്ക് നമ്മടെ ആവശ്യങ്ങൾക്ക് എങ്കിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും പെട്ടെന്ന് ഒരു കാര്യത്തിന് നമുക്ക് എന്തെങ്കിലും ഡ്രസ്സ് ഇച്ചിരി കൂടി പോവുമോ കുറഞ്ഞുപോവോ ചെയ്താൽ നമുക്ക് സ്വന്തായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റും അതിന് മറ്റൊരാളെ ആശ്രയിക്കേണ്ടത് വരുന്നില്ല പിന്നെ തുന്നൽ അത് ഒരു നല്ല സംരംഭം ആണ് പണ്ടുകാലങ്ങളിലുള്ള സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കുറവായതിനാലും ഇപ്പോൾ എല്ല സ്ത്രീകളും മിക്ക സ്ത്രീകളും തന്നെ എല്ലാവരും തന്നെ തുന്നൽ പഠിച്ചു ഒരു പഠിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊരു വരുമാന മാർഗവും ആക്കുന്നുണ്ട് അവർ തുന്നൽ ഒച്ച വച്ചിട്ടിട്ടിരിക്കുക അത് കഴിയുമ്പം തുന്നല് പിന്നെ നമ്മൾ കുട്ടി കുഞ്ഞുങ്ങൾക്ക് എല്ലാം കുട്ടി ഉടുപ്പ് തയ്ക്കാനും നമുക്ക് അറിയാം നമ്മുടെ മനസ് ആകെ മൊത്തം മൈൻ്റ് ഔട്ടായിട്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞുമക്കൾക്ക് ഓരോ ഡ്രസ്സുകൾ നമ്മൾ സ്വന്തമായിട്ട് നെയ്ത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ നമുക്ക് കിട്ടൂന്ന ഒരു സന്തോഷം ഉണ്ട് കുഞ്ഞുമക്കൾക്ക് എന്നല്ല നമുക്ക് ആണെങ്കിൽ തന്നെ അതേ ആ ഡ്രെസ്സ് നമ്മൾ ഒരു ഡ്രസ്സ് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് തുന്നി തയ്ച്ചത് ഇടുമ്പം നമുക്ക് ഒന്നു ഒരു അഭിമാനം ഞാൻ തയ്ച്ചതാണല്ലോ അതുപോലെ വീട്ടിൽ ഉള്ളവർക്കും അതു കണ്ടു ഇഷ്ടപ്പെട്ട എല്ലാവരും ചോദിച്ചു നാട്ടിലുള്ളവർ ചില ചില കുറെ പേരൊക്കെ നമ്മൾ എടുത്ത് തുന്നലിന് തുണി ഒക്കെ തന്നത് തയ്ച്ചു അതിലെ വർകൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു ആ ഒരു സന്തോഷം ഒക്കെ ലഭിക്കുന്ന നമുക്ക് അറിയാം എല്ലാം അറിയാൻ പറ്റും അതുകൊണ്ട് തുന്നലായിക്കോട്ടെ എന്തയാലും അത് ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം നമുക്ക് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി അവരുടെ നിർബന്ധപ്രകാരം അങ്ങനെ ഒന്നും അല്ല ചെയ്യേണ്ടേത് നമ്മുടെ ഇഷ്ടം നമുക്ക് ഒരു ഇഷ്ടം തോന്നുന്നു നമ്മൾ അതിനോട് ചെയ്തു വേണം ചെയ്യേണ്ടത്